ഞങ്ങളുടെ വിനോദ വൃത്തിയായ ഈ പാചകം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു തൊഴിലായിരുന്നു പക്ഷേ എനിക്കൊരു ചെറിയ ജോലിയൊണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതേ പറ്റി ചിന്തിച്ചിട്ടില്ല എനിക്ക് അതിന് സമയം കണ്ടെത്താനും പറ്റിയിട്ടില്ല എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും തന്നെ പാചകത്തോട് വളരെ താല്പര്യമുള്ളവരായിരുന്നു എൻ ഞാൻ ചെറിയ രീതിയിലൊക്കെ നല്ല രീതിയിൽ പാചകം ചെയ്യും എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരസാധനങ്ങളക്കെ വളരെ ഇഷ്ടമാണ് ഞാൻ അവിയൽ സാമ്പാർ പച്ചടി മോര് അങ്ങനെ വിവിധ തരത്തിലുള്ള കറികളൊക്കെ വെക്കാറുണ്ട് ഓണമൊക്കെ വന്നാൽ ഞാൻ ധാരാളം കറികൾ ഉണ്ടാക്കും ഞാൻ ഒറ്റയ്ക്ക് എല്ലാം എനിക്ക് അതിനൊരു മടിയും ഇല്ലായിരുന്നു പിന്നെ ജോലി കാരണം എനിക്ക് മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല വ്യവസായ കാര്യത്തിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ കാരണം എനിക്ക് അതിന് സമയമില്ല അതുകൊണ്ട് എൻ്റെ മക്കളും എൻ്റെ വീട്ടിലുള്ളവർ ആരും എന്നെ അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല കാരണം അവർക്കറിയാം എനിക്കതിന് സമയമില്ലെന്ന് പിന്നെ ഞാൻ വീട്ടിൽ എല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കുമായിരുന്നു